അതെ ഓക്കെ

ആ ഒരാൾക്കാണെങ്കിൽ മൂന്ന് ലക്ഷം കിട്ടും സംഘമായിട്ട് എടുക്കുകയാണെങ്കിൽ അഞ്ച് ലക്ഷം വരെ കിട്ടും അതെ പലിശ മൂന്ന് ശതമാനം മൂന്ന് വർഷത്തെ മൂന്ന് വർഷത്തിനടുത്ത് ഉണ്ടാവും ആ സംഘങ്ങൾക്ക് കിട്ടും അഞ്ച് ലക്ഷം വരെ

മൂന്ന് ലക്ഷം കിട്ടും

ആ

ആ പുതുക്കാൻ വേണ്ടിയിട്ടും കിട്ടും

ആ എങ്കിൽ രാവിലെ വന്നാൽ മതി

ആ ഓക്കെ ആ നിങ്ങൾ ബാങ്കിലേക്ക് വന്നാൽമതി